ഇപ്പോൾ തന്നിരിക്കുന്ന ചോദ്യം പുസ്തകങ്ങൾക്ക് പുറമെ നിങ്ങളെന്തെങ്കിലും മാസികകളോ ബ്ലോഗുകളോ പത്രങ്ങളോ വായിക്കാറുണ്ടോ എന്നതാണ് ഇതിനുത്തരം ഞാൻ പറയുകയാണെങ്കിൽ പുസ്തകങ്ങൾക്ക് പുറമേ ഞാൻ പല മാസികകളും ബ്ലോഗുകളും പത്രങ്ങളും വായിക്കാറുണ്ട് മാസികകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ മാസവും മന്ത്ലി നമുക്ക് കിട്ടുന്ന ഒരു പുസ്തകത്തെയാണ് നമ്മള് മാസിക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വനിത എന്ന് പറയുന്ന ഒരു മാസികയുണ്ട് അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് മാത്രമല്ല അല്ലാത്തർക്കും വായിക്കാൻ പറ്റുന്ന പക്ഷെ കൂടുതലും സ്ത്രീകളെ അവർക്ക് വേണ്ടി എഴുതുന്ന ഒരു മാസികയാണ് വനിത എന്ന് പറയുന്നത് പിന്നെ ഗൃഹലക്ഷ്മി പിന്നെ പല ആരോഗ്യമാസികകൾ ഉണ്ട് അതായത് അത് നമ്മുടെ ആരോഗ്യത്തിനെയും ഇപ്പോൾ കണ്ടുവരുന്ന പല രോഗത്തെയും നമ്മുടെ ലൈഫ് സ്റ്റൈൽനെ ഒക്കെ ആസ്പദമാക്കി എഴുതപ്പെടുന്ന ആരോഗ്യമാസികകളുണ്ട് അത് ഇപ്പോൾ നമുക്ക് കാണാവുന്നതുപോലെ പലരും അങ്ങനെ മ അങ്ങൻത്തെ അങ്ങനെയുള്ള മാസികകൾ മേടിച്ചു വായിക്കാറുണ്ട് പിന്നെ മാസിക നമ്മുടെ ഈ ടെലിവിഷൻ അല്ലെങ്കിൽ മൂവി ഇൻ്റസ്ട്രീസിനെ ബേസ് ചെയ്തിട്ടുള്ള മാസികകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതായത് ഇപ്പോൾ അടുത്തിറങ്ങിയ സിനിമകളെയോ അല്ലെങ്കിൽ ഫിലിംസ്സിനെ പറ്റിയിട്ടുള്ളത് പിന്നെ നടന്മാരേയും നടിമാരെയും നായിക നായകന്മാരെയും നായികമാരേയും പറ്റി ഉള്ള അവരുടെ ഫാമിലീനെ പറ്റിയുള്ള പലകാര്യങ്ങളും മെൻഷൻ ചെയ്തുകൊണ്ടുള്ള മാസികകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നെ ഇപ്പോൾ ഈ ഒരു പുതിയ വേൾഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാൻ നമുക്ക് കാണുവാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ബ്ലോഗുകൾ അതായത് ഇപ്പോൾ കവിതകളും കഥകളൊക്കെ എഴ്തി ഒരു പുസ്തകത്തിൽ പബ്ലിഷ് ചെയ്യുന്നതിന് പകരം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ബ്ലോഗുകൾ ബ്ലോഗായി പോസ്റ്റ് ചെയ്യുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതുകൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഒരു സ്പെസിഫിക് പ്രെത്യേക അക്കൗണ്ട് തുടങ്ങി അതിൽ അവരെഴുതുന്ന കവിതകളും ആ കഥകളും പിന്നെ അവർ പറയാൻ ആഗ്രഹിക്കുന്ന അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതും അത് പലർ വായിക്കുന്നതും അതിനെ അതിന് അംഗീകാരം കൊടുക്കുന്നതൊക്കെ നമുക്ക് ഈ അടുത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നെ പത്രങ്ങളിൽ നമുക്ക് പല ഭാഷകളിൽ ലഭ്യമാണ് ഇങ്ക്ളീഷിൽ ഇവിടെ ഇപ്പോൾ നമ്മള് നോക്കുവാണേൽ ഇങ്ക്ളീഷിൽ ലഭ്യമാണ് ഹിന്ദു പേപ്പറ് ഇന്ത്യൻ എക്സ്പ്രെസ് പേപ്പറ് ഉണ്ട് പിന്നെ മലയാള പത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ മാതൃഭൂമി മലയാള മനോരമ ദീപിക എന്നിങ്ങനെ പല പത്രങ്ങളും നമുക്ക് കോ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ മാസികളും ബ്ലോഗ്കളും ബ്ലോഗുകളും പത്രങ്ങളും വേറെ പുസ്തകങ്ങൾക്ക് പുറമേ ഞാൻ വായിക്കാറുണ്ട്